ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വയനാട്ടുകാരാണ് അവിടുന്ന് കുറേ ടൂറിസ്റ്റ് പ്ലേസ് സന്ദർശിക്കുകയാണെങ്കിൽ പുറത്തുനിന്ന് ആൾക്കാർ വരികയാണെങ്കിൽ അവർ ചിലവഴിക്കേണ്ട തുക എന്ന് പറയുന്നത് ഒരു അത്യാവശ്യ നല്ലവണ്ണം നല്ലവണ്ണം നമ്മൾ നല്ല രീതിയിൽ നമുക്ക് ആസ്വദിക്കണം ഈ വയനാട് ഫുൾ ചുറ്റി കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല പൈസ കൊടുക്കേണ്ടി വരും എന്ന് വെച്ചൊരു പോക്കും വരവും ചിലവും പിന്നെ ഫുഡിൻ്റെ കാര്യം പിന്നെ ഓരോ റൈഡും കാര്യങ്ങളൊക്കെ കയറാൻ ഉള്ളതും അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് അടിച്ച് പൊളിക്കണം എന്നുണ്ടെങ്കൽ അത്യാവശ്യം നല്ല ചിലവ് വരും ഏകദേശം വരുവാണെങ്കിൽ തന്നെ ഒരു പത്തമ്പത് ഒരു ഒരു ലക്ഷം രൂപ ഒരു പത്തമ്പത്തിൻ്റടുത്ത് നമ്മുടെ കയ്യിലുണ്ടെങ്കി നമുക്ക് ഈ വയനാട് ഫുൾ ചുറ്റിക്കണ്ട് പോവാം അത്ര നല്ലവണ്ണം അത്യാവശ്യം നല്ല സ്പോട്ട് കുറേ ടൂറിസ്റ്റ് പ്ലേസ് ഉള്ളൊരു എന്താണ് പറയുക ഒരു ജില്ലയാണ് വയനാട് എന്നുള്ളത് അത്യാവശ്യം കുറേ ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഒരത്യാവശ്യം ഒരമ്പതിനായിരം രൂപ മിനിമം ഒരാൾക്കൊക്കേ ഒരു ഒന്ന് രണ്ട് പേർക്കൊക്കെയാണെങ്കിൽ ഒരമ്പത് ഒരറുപത് അതിനൊക്കെ അടുത്താണെങ്കിൽ നമുക്ക് എന്താണ് പറയുക വയനാട് ഫുൾ ചുറ്റി കാണാം കാരണം വരവ് ചിലവ് വണ്ടിയുടെ കാര്യം വണ്ടീൻ്റെ പോക്കും വരവ് ചിലവ് എല്ലാം കൂടി ഒരു പത്തറുപതിനായിരം രൂപയൊക്കെ എന്തായാലും കയ്യിൽ വയ്ക്കുവാണെങ്കിൽ നമുക്ക് വയനാട്ടിലെ ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ എല്ലാം കണ്ട് അടിച്ച് പൊളിച്ചിട്ട് പോവാൻ പറ്റും